ലോക്ക്ഡൌൺ കാലത്ത് ഒരുപാട് പരീഷിച്ചു കേക്കായിട്ടും പിന്നെ ഭഷണങ്ങളുണ്ടാക്കിയതായിട്ടും പിന്നെ സ്നാക്ക് ആയിട്ടും പിന്നെ ജ്യൂസാണേൽ ലൈംമാണ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മക്കൾക്കായാലും എല്ലാവർക്കായലും ഇഷ്ടപ്പെട്ടത് നമ്മള് കേക്കും പിന്നെ നമ്മൾ ഭക്ഷണവുമാണ് ഭക്ഷണം പല രീതിയിൽ ഉണ്ടാക്കി നോക്കി കിട്ടണമാതിരി അങ്ങനെ ഓരോ ഇതിലങ്ങനെ ഉണ്ടാക്കി നമ്മളെ സംബദ്ധിച്ച് എന്തേലുമൊക്കെ ഒരു ഇത് കിട്ടണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് ടാസ്ക് തന്നെയാണ് പക്ഷേ എന്നാലും നമ്മൾ നമ്മൾ അതിനൻസുസരിച്ച് ഉണ്ടാക്കി കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കൊടുത്ത് അങ്ങനെ കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ ഓരോരോ ചായ എണ്ണക്കടികളും വേറെ ഉള്ളതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒക്കെ ഓരോന്നിലും വിജയിച്ചു നല്ല ഇതായി എല്ലാവർക്കും തൃ ഇഷ്ടമായി എല്ലാവരുടെയും നല്ല മൻ ഇത് കേട്ടിട്ടുണ്ട് എനിക്കും നല്ല സന്തോഷമായി പിന്നെ അപ്പം നമുക്ക് കൂട്തലുണ്ടാക്കാനൊരു താത്പര്യവും ഉണ്ടാകും അങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സും സന്തോഷവും നിറച്ചു പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി അങ്ങനെ ആയിട്ട് പിന്നെ ഭക്ഷണം തന്നെ പല രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കി ഒരുപാട് ചോറായിട്ടും പയറലായിട്ടൊക്കെ ഓരോ രീതിയിൽ ഓരോ രീതിയിൽ ഉണ്ടാക്കി പരീക്ഷിച്ചു നോക്കി എല്ലാത്തിലും വിജയിച്ചിട്ടുണ്ട് അതിലൊന്നും എനിക്ക് മോശം വന്നിട്ടില്ല എല്ലാത്തിലും നല്ല വിജയിച്ചിട്ടുണ്ട് ലോക്ക്ഡൗൺ ആണ് ക്യാഷില്ലാത്ത സമയമാണ് എന്നാലും നമുക്ക് കിട്ടുന്നതിന് അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് എല്ലാം വിജയിച്ചിട്ടുണ്ട് ഒന്നിലും മോശം വന്നിട്ടില്ല